ഈ ഗ്രാമപ്രദേശങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് ഏറ്റവും കൂടുതൽ വെള്ളുവിളി ഓൽക്ക് സാമ്പത്തികമായിക്കാണ്ട് പിന്നോട്ടായിക്കാരം മ് നമ്മൾ ഈ നാഗരികവൽക്കരിക്കപ്പെട്ടവർ അല്ലെങ്കിൽ അർബൺ ഏരിയയിൽ വരേക്കാൾ കൂടുതൽ ഇതാണ് നമുക്കൊരു അപ്ഡേറ്റ്സോ ഡെവലപ്മെൻറ്സോ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവുള്ളൂ എ ചിലപ്പോൾ എന്തുണ്ട് നാട് സിറ്റികളിൽ അർബൺ ഏരിയകളിലെത്തിയ പല കാര്യങ്ങൾ ചിലപ്പോൾ ഒരു ഒന്നൊന്നര വർഷം കഴിയുമ്പോളെ എവിടേക്ക് എത്തുള്ളൂ ഗ്രാമങ്ങളിലേക്ക് എത്തുള്ളൂ ഏത് നമുക്ക് ഉദാഹരത്തിന് പണ്ട് കാലം ഒക്കെ എടുത്തുനോക്കുകയാണെങ്കിൽ എന്താണ് കറണ്ട് കറണ്ട് എത്താത്ത പല നാട് അന്നൊക്കെ നാട് സിറ്റികളിലും കറണ്ട്കൾ പെട്ടെന്ന് പെട്ടെന്ന് എത്തിയിരുന്നു അല്ലെങ്കിൽ നമുക്ക് നെറ്റ്വർക്കിൻറെടുത്തോ വൈഫൈ നെറ്റ്വർക്കും കാര്യങ്ങളും ഈ ഒരു കാലത്ത് നോക്കുകയാണെങ്കിൽ എന്താണ് പുതിയ പുതിയ നെറ്റ്വർക്ക് വരുന്നുണ്ട് അപ്പം ആ നെറ്റ്വർക്ക് വയ നെറ്റ്വർക്കുകൾക്കെന്താണ് സിറ്റികളിലാണ് ആദ്യം അപ്ലൈ ചെയ്യുന്നത് പിന്നെയാണ് എന്ത് ഇതിലേക്ക് വരുന്നത് ഗ്രാമങ്ങളിലേക്ക് കാരണം അവ അതിൻ്റെ സോഷ്യൽ ഡെവലപ്മെൻറ്റ്റ് സാമ്പത്തികാവസ്ഥ ആദ്യം സിറ്റികളിലെ സാമ്പത്തികാവസ്ഥ കൂടുള്ളു അതിന് ശേഷം ഉള്ളൂ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങുക അപ്പോൾ അവിടെയാണ് അപ്പോൾ ഈ ഗ്രാമങ്ങളൾ എന്ന് പറയുക ഒന്ന് എന്ത് സാമ്പത്തികമായിക്കാണ്ട് കുറച്ച് പിന്നോട്ട് നിൽക്കുന്നതാണ് എല്ലാവരും പിന്നോട്ട് നിൽക്കുന്ന ഗ്രാമങ്ങളിൽ പോയി താമസിക്കാൻ ഇഷ്ടപ്പെട്ട് വലിയ സാമ്പത്തികം ഉള്ളവരുണ്ട് അങ്ങനെയല്ല ഒരു എമ്പത് ശതമാനം ആളുകൾ എന്താണ് ഒരു മിഡിൽ ഏ ഒരു എന്ത് ബിലോ എന്ത് ആവറേജ് ചെയക്കാണ്ട് അവിടെ ആളുകളേക്കാരും മ് അവർ അന്നന്ന് ദിവസത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് അന്നന്ന് കഷ്ടം ജീവിച്ച് പോകുന്ന ആളുകളേക്കാരും പലരും ഏ അതാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഡാവെലെപ്മെൻറ്സ് പെട്ടെന്ന് കാര്യങ്ങൾ അങ്ങോട്ട് എത്താത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഏ അതു തന്നെയാണ് മ് അല്ലാതെ അവരിപ്പോൾ അവർക്ക് പുരോഗതി ജീവിക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് അല്ല അവർ അന്നന്നത്തെ ഭക്ഷണത്തിന് വേണ്ടി അന്നന്നത്തെ ജീവിതത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരാണെന്നവർ ഗ്രാമങ്ങളിലുള്ളവർ അവർക്കെന്താണ് നമ്മൾ കഴിയുന്നത് പരമാവധി എന്താണ് സഹായം ചെയ്ത് കൊടുക്കുക മാറ്റങ്ങൾക്ക് വേണ്ടി ഇതാക്കുക ഭക്ഷണം കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക പ്രത്യേകിച്ച് ഈ ഒരു പാൻഡമിക്കിനൊക്കെ കൊറോണ ടൈമിലൊക്കെ അവരാണ് ഏറ്റവും അവർ സസ്റ്റൈബിൾ ആവുന്നുണ്ട് പക്ഷെ എന്തിരുന്നാൽ പോലും പലതരം സഹായങ്ങളിലേക്കും കണ്ണെത്താതെ പോയ പല ഈ എന്ത് ഉള്ളിലൊക്കെ കാട്ടിലൊക്കെ ജീവിക്കുന്ന അല്ലെങ്കിൽ മലപ്രദേശത്ത് ജീവിക്കുന്ന പല ആളുകളുണ്ട് അവർക്കൊന്നും കാര്യമായിട്ട് ചിലർ ശ്രദ്ധിക്കാതെ പോവുന്നുണ്ട് ഏ നമ്മളിപ്പോൾ പല സഹായങ്ങളും വലിയ എന്ത് ക്രൂഷ്യലായിട്ടുള്ള സമയത്തൊക്കെ സഹായം നൽക്കുന്ന സമയത്ത് ഇവർക്ക് പലത് കണ്ട് ഇവർ ഇവരിലേക്ക് അധികവും സാധനങ്ങൾ കുറേ സാധനങ്ങൾ സംഭാവന ചെയ്യാൻ ഇഷ്ടംപോലെ ആളുകളുണ്ട് പക്ഷെ എന്താണ് ഇവരിലേക്ക് ഇതെത്തുന്നില്ല അപ്പോൾ അവകാശികളിലേക്കും അതെന്ത് അർഹതപ്പെട്ടവരിലേക്കും പല കാര്യങ്ങളും എത്താതെ പോകുന്ന ഒരു സാഹചര്യമാണിത് പ്രത്യേകിച്ച് ഈ റൂറൽ ഏരിയകൾ എന്ന് ഉള്ളത് എല്ലാം എന്ത് ഉള്ളവർക്ക് തന്നെ വീണ്ടും വീണ്ടും കിട്ടുന്നൊരു സാഹചര്യമാണ് നമുക്ക് ശക്തമായി പോരാടണം പോരാടണം എന്ന് പറഞ്ഞാൽ വാക്കുകളുയർത്തണം വൈലൽസ് അല്ല അത് എന്ന് ഉണർത്തിയ സമൂഹത്തെ മുന്നോട്ട് നയിക്കേണ്ടതാണ് ഒരു വിദ്യാഭ്യാസപരമായി മുന്നോട്ട് ജയിച്ച ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു വ്യക്തിത്വം ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഏ നമ്മളെന്താെണെന്ന് വെച്ചാൽ പിന്നോട്ട് നിൽക്കുന്നരെ അവരെന്നും പിന്നോട്ടെന്ന് പറയുന്നതിന് പകരം അവരെ എന്താ പിന്നോട്ട് നിൽക്കുന്ന മുന്നോട്ട് കൊണ്ടുവരാനുള്ള പ്രയത്നങ്ങളാണ് നമ്മൾ ചെയ്ത് കൊണ്ടിരിക്കേണ്ടത് ഏ എന്നും ഗ്രാമപ്രദേശത്ത് എന്നും ഗ്രാമ ഗ്രാമപ്രദേശം വേണം അങ്ങനെത്തെ ആളുകളും വേണം ഏ സ്വസ്ഥമായി ജീവിക്കാൻ കുറച്ച് ആളുകളുണ്ട് ഈ എന്താ അർബൺ ഏരിയകളിൽ ചെയ്യുന്നത് വളരെ പ്രയാസകരമാണ് ഏ